ഹായ് എന്നാ ഒന്നും മിണ്ടാത്തത് എന്താ പറ്റി ഇതെന്തിനാ ഇവർ ഇവിടെ കൊണ്ട് വന്നത് ആണോ ഓ ശരി ചുമ്മാ വന്നിട്ട് എങ്ങനെയുണ്ട് വീടൊക്കെ കൊള്ളാമോ എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ അല്ലേ അതെന്താ അങ്ങനെ പറയുന്നത് അല്ല അല്ല ദേ ഈ പടം നോക്കിക്കേ അല്ല ഈ പടം നോക്കിക്കേ ഈ പടം കണ്ടിട്ട് എന്താ തോന്നുന്നത് എങ്കിലും ആ പടത്തിലോട്ട് ഒന്ന് സൂക്ഷിച്ച് നോക്കി അതിൻ്റെ അകത്ത് ആ പൂവും നദിയും ഒക്കെ കണ്ടിട്ട് ഒരു മനസ്സിനൊരു കുളിർമ പോലെ തോന്നുന്നില്ലേ അവർ വല്ലതും കഴിച്ചായിരുന്നോ അതെന്താ കഴിക്കാഞ്ഞത് ഇന്നലെ രാത്രി ഉറങ്ങിയായിരുന്നോ അതെന്താ ഉറക്കം ഇല്ലേ അതെന്നാ പറ്റി ഉറക്കം വരാത്തത് ഏഹ് അപ്പോൾ ഇപ്പോൾ പറഞ്ഞു എന്നെ കൊണ്ട് വന്നതാണെന്ന് ആ അപ്പം നമുക്ക് ഇതിന് എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാമോ ആദ്യം ഫോൺ യൂസ് ഒക്കെ ഉണ്ടോ ആ രാത്രി കിടക്കുന്നതിന് മുമ്പൊക്കെ ഫോൺ നോക്കിയിട്ടാണോ കിടക്കുന്നത്

അപ്പോൾ എന്തൊക്കെയാ ഫോണിൽ ചെയ്യുന്നത് ആ ശരി അപ്പോൾ എത്ര മണി വരെയാ കാണുന്നത് ഇത് ആ ഉറക്കം എപ്പഴാ വരുന്നത് അപ്പം ഈ ഫോൺ യൂസ് ഒക്കെ ഒന്ന് കുറക്കണമല്ലോ അതെന്താ റൂമിൽ ഒറ്റയ്ക്കാണോ ആ ഇനി തൊട്ട് അച്ഛൻ്റെ അമ്മേടെ ഒക്കെ കൂടെ കിടക്കണം അപ്പോൾ ഉറക്കം ഒക്കെ വന്നുകൊള്ളും ഈ ദേഷ്യം ഒക്കെ ഒന്ന് മാറും പിന്നെ ഈ പടത്തിലോട്ട് നോക്കിയിട്ട് എന്താ ഒന്ന് ശരിക്കും നോക്കിക്കേ എന്താ തോന്നുന്നത് എന്ന് മലയും പുഴയും ഒക്കെ കണ്ടിട്ട് മനസ്സിനൊരു കുളിർമ തോന്നുന്നില്ലേ ആ അപ്പം ഫോൺ മാറ്റിയിട്ട് ഇനി തൊട്ട് പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം ബുക്കില് അല്ലെങ്കിൽ എന്താ വായിക്കുന്നതൊക്കെ ഇഷ്ടം ആണോ പിന്നെ എന്താ ഇഷ്ടം കഥ വായിക്കുന്ന ഇഷ്ടം അല്ലേ

ആ ഇത് പക്ഷെ പതുക്കെ ഇത് മാറ്റണം നല്ല ഉറക്കം ഒന്നും ഇല്ലാഞ്ഞാണ് ഇത്ര ദേഷ്യമായിട്ടിരിക്കുന്നത് ആ അപ്പം നമുക്ക് ഇനിയും ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ കാണാം ആ പൊക്കോ